ഹലോ ആ വെജിറ്റബിൾ കടയിലെ ചേട്ടനല്ലേ ആ ചേട്ടാ എന്നാ ഫ്രൂട്ട്സൊക്കെ എന്താണ് ഇരിക്കുന്നത് ആ ആ ആ മറ്റേ ഇപ്പം ചക്ക വരിക്ക ചക്കയാണോ കൂഴയാണോ എ

ആണോ എന്നാ ചക്കയ്ക്ക് എന്താ കിലോ വില ആണോ പിന്നെ ഏത്തപ്പഴം ഉണ്ടോ ആ മറ്റേ ബോളി ഉണ്ടാക്കാൻ പാകത്തിനുള്ള ആ അപ്പം ഏത്തപ്പഴം ഒരു അഞ്ച് കിലോ വേണേ

അത് അത് കുഴപ്പം ഇല്ലായിരുന്നു മ്മ് വേറെ എന്നാന്നെ ഇരിക്കുന്നത് ചെറുപഴങ്ങളേതാണ് ഉള്ളത്

മ്മ് മ്മ് ഞാലിപ്പൂവന് ഇപ്പം എന്താ ചേട്ടാ വില അറുപത് രൂപ ആ അത് കുഴപ്പമില്ല അപ്പം ഏത്തപ്പഴത്തിന് നല്ല പഴുപ്പുള്ളതാണോ ബോളി ഉണ്ടാക്കാൻ പാകത്തിന് അതെ അല്ലെ മ്മ് ഓക്കെ എപ്പം വന്നാലും അവിടെ ഉണ്ടല്ലൊ അല്ലെ എപ്പം വന്നാലും ഇത് നമുക്ക് അവിടെ ഉണ്ടല്ലോ അല്ലേ ആ ആ

അഞ്ച് കിലോ ഏത്തപ്പഴം അഞ്ച് കിലോ ഏത്തപ്പഴം ആ അതൊത്തിരി പഴുത്ത് ഒത്തിരി പഴുത്ത് പോകാത്തത് വേണം ഒത്തിരി പഴുത്ത് പോകണ്ട ആ പിന്നെ ഫ്രഷായിട്ടുള്ള പഴം വേണം കേടൊന്നും വച്ചേക്കരുത് ഞാൻ ഈ കഴിഞ്ഞ പ്രാവശ്യം അവിടെ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ അത് ഒരു കുറച്ച് അപ്പടി കംപ്ലെയിൻറ്റായിരുന്നു പഴുത്തൊക്കെ പോയതായിരുന്നു ആ പിന്നെ അതും വേണം വരിക്കചക്കയില്ലേ

അല്ല അത്യാവശ്യം നമുക്ക് ആവറേജൊരു ഇല്ലേ വരിക്ക വാടിപ്പോയത് വേണ്ട അല്ലാത്ത ഫ്രഷ് വേണം

ആ പിന്നെ അത് രണ്ടും ഒന്ന് എടുത്ത് വെച്ചിട്ട് ഒന്ന് പറഞ്ഞാൽ മതി കേട്ടോ ചേട്ടൻ്റെ കട ശരിക്കും കടയുടെ പേര് എന്താ കട എവിടെ ആണ് ആ കടയുടെ പേര് എന്താ ചേട്ടാ

വെജിറ്റബിൾസ് അല്ലെ ആ ആ ആ ശരി ശരി ഞങ്ങൾ വന്നേക്കാം കുറച്ച് ഏറെ വേണം ഞങ്ങൾ ഒരു പത്തുമണി ആകുമ്പത്തേനും വന്നേക്കാം ഞങ്ങൾക്ക് ഈ ഏത്തപ്പഴം ഒക്കെ ഇച്ചിരി അധികം വേണം നമുക്ക് അത്രയും എടുക്കാൻ മാത്രം ഉണ്ടാകുമോ ആ അപ്പം നമുക്ക് പത്ത് കിലോയിൽ കൂടുതലൊക്കെ എടുക്കാനാണ് നല്ല പഴം ആ പിന്നെ നെല്ലി നെല്ലിക്ക ആണേലും നമ്മൾ നെല്ലിക്ക ഉണ്ടോ നമുക്ക് ഉപ്പിലിടാനായിട്ട് കേട് പറ്റാത്ത നെല്ലിക്ക ആ അല്ല ഉപ്പിലിടാനായിട്ട് അതേ അല്ലെ എനിക്ക് നാടൻ നെല്ലിക്ക മതി അ ആ ആ ആ

എല്ലാം പത്ത് പത്ത് കിലോ വെച്ച് എടുത്ത് വച്ചേര് പിന്നെ ചക്ക ഒരു മൂന്ന് ചക്ക

വരിക്കച്ചക്ക എടുത്ത് വെക്കണം ആ പഴുത്തത് കേടാവാത്തത് ഓക്കെ ചേട്ടാ